ഈ പട്ടണം ഗ്രാമങ്ങളെന്നു പറഞ്ഞുകഴിഞ്ഞാല് ആശുപത്രി അടുത്ത് ഞങ്ങള്ക്ക് വീട്ടില് വണ്ടി ഇല്ലെങ്കിലും തൊട്ടടുത്തൊക്കെ ഞങ്ങള്ക്ക് ആശുപത്രി ഒക്കെ ഉണ്ടെങ്കില് ഞങ്ങള്ക്ക് നടന്നുപോവാന്നുള്ള ദൂരമേ ഉള്ളൂ പക്ഷേ ഇത് എല്ലാവര്ക്കും അതാവശ്യമാണ് ഒരു വണ്ടി എന്നു പറയുന്നത് എല്ലാവര്ക്കും ആവശ്യമാണ് ആശുപത്രിയും ഞങ്ങള്ക്ക് അടുത്ത് വീടിന്റെ അടുത്ത് ഒരാശുപത്രി അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് ഉണ്ടങ്കിലല്ലേ ഞങ്ങള്ക്ക് ഒരസുഖമെന്തെങ്കിലും വന്നുകഴിഞ്ഞാല് ഓടി പോവാന് പറ്റുള്ളൂ ഇപ്പോള് ഞങ്ങളുടെ വീട്ടില് വണ്ടിയില്ലാത്തവരുണ്ട് വണ്ടി ഉള്ളവരുണ്ട് പട്ടണത്തിലുള്ള ആള്ക്കാര് ചില വീട്ടുകള് വീടുകളില് പാവപ്പെട്ടവരുണ്ട് പണക്കാരുമുണ്ട് ഒരസുഖം വന്നു കഴിഞ്ഞാല് എളുപ്പത്തില് ഞങ്ങള്ക്ക് ആശുപത്രിയില് പോകണം അപ്പോള് ഞങ്ങള്ക്ക് വീട്ടിന്റടുത്ത് തന്നെ ഒരാശുപത്രി അര്ജന്റ്റായിട്ട് വേണം ആ അതാണ്